കൂടുതൽ ആൾക്കാർക്കായിട്ട് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട് ചിലപ്പം നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ മോശപ്പെട്ട അനുഭവങ്ങളുണ്ടാവും ഒരുപാട് ഏറ്റോം കൂടുതൽ ആദ്യമായിട്ടാണ് ഭക്ഷണം ആദി എന്താ പറയാ കൂടുതലാൾക്കാർക്ക് വേണ്ടീട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപ തീർച്ചയായിട്ടും മോശപ്പെട്ട അവസ്ഥയായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക ചിലപ്പം അളവിനകത്ത് എന്തേലും വ്യത്യാസം വരും മല്ലിപ്പൊടി മുളകുപൊടി ഒക്കെ ഇടുന്ന സമയത്ത് അത് ചിലപ്പം നമുക്കറിയാൻ പറ്റത്തില്ല ഇത്രപേർക്ക് വേണ്ടീട്ട് ഇത്ര അളവിലായിരിക്കും അത് ചെയ്യേണ്ടത് അറിയത്തില്ല ചിലപ്പം പച്ചക്കറികൾ കുറവുകാണും ചിലപ്പം രുചി തന്നെ മോശമായിരിക്കാം അതൊന്നും നമുക്ക് അതൊക്കെ നമുക്കൊരു രണ്ട് മൂന്ന് വട്ടമൊക്കെ അത് ചെയ്ത് വരുന്ന സമയത്തെ നമുക്കതിനെ കുറിച്ചറിയാൻ പറ്റാത്തുള് എൻ്റെ എന്നെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഞാൻ മൂന്ന് നാല് വട്ടം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കത് എങ്ങനാണ് എങ്ങനാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ധാരണ കിട്ടിയത് അപ്പം ഒരുപാട് ഇപ്പം ആദ്യമായിട്ട് ചെയ്യുന്ന ആൾ കൂടുതൽ ആൾക്കാർക്ക് ആ വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ടൈമിങ്ങിനകത്ത് സമയമെടുത്ത് നമ്മളൊരുപാട് സമയമെടുത്ത് ചെയ്യേണ്ടിവരും എന്ന് വെച്ചാൽ ടൈമിംഗ് നമുക്കഡ്ജസ്റ്റ ചെയ്യാൻ പറ്റാത്ത സമയത്തിനാണെങ്കിൽ നമുക്കൊരുപാട് താമസം എടുക്കും അത് ചെയ്യുന്നതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പം നമ്മൾക്ക് ഈ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റോം പാടുള്ള കാര്യമായിരിക്കും ആദ്യമേ ചെയ്യുന്നത് ആ പാടുള്ള കാര്യം ആദ്യമേ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ബാക്കിയുള്ളതൊല്ലാം ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നായിരിക്കും അവരുടെയൊക്കെ വിശ്വാസം പക്ഷേ നമ്മൾ എളുപ്പമുള്ള കാര്യങ്ങളെല്ലാം ആദ്യമേ ചെയ്തു വെച്ചതിന് ശേഷം പാടുള്ള കാര്യത്തിലെ ലാസ്റ്റ് ചെയ്താൽ നമുക്കതിനകത്ത് ഒരുപാട് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റും അതിനകത്ത് ഒരുപാട് ശ്രദ്ധ ചെലുത്തിയിട്ട് നമുക്കാ ആ വിഭവം നല്ല രീതിക്കാക്കാൻ പറ്റും കാര്യന്നു വെച്ചാൽ ഇപ്പം നമ്മൾ നമ്മളൊരു സദ്യയാണ് ഉണ്ടാക്കുന്ന് ആ സദ്യക്കകത്ത് ആണെങ്കിൽ ഏറ്റോം ഇത് വരുന്നത് അതിനകത്ത് ഒഴിച്ചു കറി വരുന്ന സമയത്തായിരിക്കും നമുക്ക് അതിനകത്ത് പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും ഒരുപാട് എന്താ സമയം നമുക്ക് അതിനകത്ത് വേണ്ടത് അതിനകത്ത് ശ്രദ്ധ കൊടുക്കേണ്ടത് ഒരു അവിയൽ തോരനും അങ്ങനത്തുള്ള സംഭവങ്ങൾ വെക്കുന്നതിന് ഒരുപാട് ശ്രദ്ധ വേണ്ട അത് നമുക്ക് ജെസ്റ്റ് ടൈമിങ്ങിനാത്ത് അഡ്ജസ്റ്റെ ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റും എന്നാൽ ഈ പായസമൊക്കെ ഉണ്ടാ സമയത്ത് ഒരാൾ തന്നെ കൂടെ നിൽക്കണം ഇപ്പോൾ ഒരൊറ്റ ആളെ ഉള്ളെങ്കിൽ അത് നമ്മൾ ടൈം അഡ്ജസ്റ്റെ ചെയ്തിട്ട് വേണം അത് ചെയ്യേണ്ടി വരുന്നത് ഇപ്പം കൂടുതൽ ആൾക്കാർക്ക് വേഗത്തിലുണ്ടാക്കാനാ ഉണ്ടാക്കാനായിട്ടുള്ള മാർഗങ്ങളെന്ന് വെച്ചാൽ പച്ചക്കറിയിപ്പോൾ രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ പച്ചക്കറികൾ നേരത്തെ വാങ്ങിച്ചു വച്ച് അത് കട്ട് ചെയ്തൊക്കെ വെച്ച്കഴിഞ്ഞാൽ നമുക്കത് എളുപ്പം സാധിക്കും തലേന്നേ അതെല്ലാം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് നമുക്കത് ഉണ്ടാക്കിയാൽ മതി കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട നേരത്തെ അതിനുള്ള സാധനങ്ങളും സാമഗ്രികളും എല്ലാം നമ്മൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ഒരുപാട് വേഗത്തിൽ നമുക്കത് ചെയ്തു തീർക്കാൻ പറ്റും ഒരു പായസം ഉണ്ടാക്കാനാണെങ്കിൽ ആ സമയത്ത് നോക്കുമ്പയ്യോ ചിലപ്പം പഞ്ചസാര കാണത്തില്ല ഏലക്ക കാണത്തില്ല നെയ്യ് കാണത്തില്ല അങ്ങനൊരു വിഷയം നമുക്കുണ്ടാവരുത് അതിനു നമ്മൾ എന്തു ചെയ്യണം ആദ്യമേ അതെല്ലാം സെറ്റ് ചെയ്തു വെക്കണം അപ്പോൾ പച്ച പച്ച എന്താ സദ്യക്കായാലും പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നേരത്തെ അരിഞ്ഞുവെച്ചും അതിൻ്റെ എന്താ തലേന്ന് വേവിച്ചിടാൻ പറ്റിയതൊക്കെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്താ പറയുന്ന ഒരുപാട് കാര്യത്തിന് നമുക്ക് അഡ്ജസ്റ്റെയ്തത് നല്ല രീതിക്ക് ഭംഗിയാക്കാൻ പറ്റും നമുക്കാ കാര്യങ്ങൾ ആദ്യായിട്ട് പാചകം ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും മോശപ്പെട്ട അവസ്ഥയായിരിക്കും ഉണ്ടാവുന്നത് അതൊക്കെ നമ്മള് അറിഞ്ഞും കണ്ടും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഫുഡ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഭക്ഷണം പാകം ചെയ്യുക എന്ന് വെച്ചാലവിടൊരു കലയാണ് അതിൻ്റെ കൂടെ നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അളവിനും അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റോം നല്ല ഒരു കലയാണ് നമ്മൾ ഫുഡുണ്ടാക്കുക എന്ന് വെച്ചാൽ ആഹാരം പാകം ചെയ്യുക എന്നുള്ളത് ഒരു ആഹാരം മറ്റുള്ളവർക്ക് കൊടുക്കുന്നെയാണെങ്കിൽ അത് അത്രയ്ക്കും പുണ്യമായിട്ടൊരു കാര്യമാണ് അപ്പം നമ്മളൊരാൾക്ക് ആഹാരം കൊടുക്കുക എന്നു പറയുന്നത് അത് ഏറ്റോം വളരെ നല്ല കാര്യമാട്ടാണ് ഞാൻ പറയത്തുള്ളൂ കാരണം നമ്മൾ മതി എന്ന് പറയുന്നത് ഈ ഭക്ഷണം മാത്രമാണ് നമ്മളൊരാൾക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പണം കിട്ടി പിന്നെയും പിന്നെയും പിന്നെയും പിന്നെയും കിട്ടണമെന്നായിരിക്കും അയാൾ പറയുന്നത് പക്ഷേ നമ്മൾ രുചിയുള്ളൊരു ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ മതി എന്ന് പറയും അയാളുടെ വയറ് നിറഞ്ഞ് കഴിഞ്ഞാൽ അയാൾ പിന്നെ കഴിക്കില്ല അതാണ് ഭക്ഷണത്തിൻ്റെ മഹത്വം എല്ലാവർക്കും ഒരുപോലെ സമത്വത്തിന് നിൽക്കുന്ന രീതിയാണ് ഭക്ഷണം ഭക്ഷണം ഉണ്ടെങ്കിൽ നമുക്കേതും ഇതാക്കാം ഒരു നേരം നമുക്കൊരു ഭക്ഷണം ഇല്ലെങ്കിലോ നമുക്ക് അതിനെ കൊണ്ട് പറ്റത്തില്ല അപ്പം നമ്മൾ ആ ഒരാൾക്ക് ഫുഡൊണ്ടാക്കി കൊടുക്കുന്നൊരാൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നൊരാളാണെങ്കിൽ അത് നല്ല രീതിയിൽ അതിൻ്റെ രീതിയിൽ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇന്ന് നേരത്തെ അവർക്കതിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ കാണും അയ്യോ അതെങ്ങനെ ഉണ്ടാക്കിയാൽ ഇതിങ്ങനായി പോവും അത് ഇങ്ങനെ വേണം അത് ചെയ്യാൻ എന്നുള്ള രീതിയിലൊക്കെ നമ്മളത് നന്നായിട്ട് ചെയ്യും